ഹലോ ഇതെസ് ഇത് എസ് ബി ഐ അല്ലേ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനായിരുന്നു കഴിഞ്ഞദിവസം ഞാൻ ഇവിടെ ടെക്സ്റ്റൈലിൽ പോയി കുറെ പർച്ചേസ് നടത്തി അപ്പോൾ എനിക്ക് ഒരു പയിനായിരം രൂപയുടെ എമൗണ്ട് വന്നായിരുന്നു ഞാനത് ഗൂഗിൾ പേ ചെയ്തായിരുന്നു പക്ഷേ എനിക്ക് അതിനെ കു അത് ഗൂഗിൾ പേ ചെയ്തിട്ട് അവിടെ കിട്ടിയിട്ടില്ലാന്നാണ് അവർ പറയുന്നത് എന്താ അതിൻ്റെ റീസൺസ് ഒന്ന് പറയാമോ എത്രയും വേഗം പൈസയുടെ ബുദ്ധിമുട്ടായിരുന്നു എമർജൻസിയായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്തെങ്കിലും അവിടെ വന്നാൽ എന്തെങ്കിലും മാഡം അവിടെ വന്നാൽ എന്തെങ്കിലും ഞാൻ ബാങ്കിലേക്ക് വന്നാൽ എന്തെങ്കിലും രക്ഷയുണ്ടോ എന്തെങ്കിലും നോക്കീട്ട് കിട്ടുമോ അപ്പം എന്തെങ്കിലും കാരണവശാൽ അത് പൈ പണം നഷ്ടമായാൽ പൂർണ ഉത്തരവാദിത്വം ബാങ്കിനാണല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും അതെ അപ്പോൾ എനിക്ക് അവിടെ വന്നാൽ എന്താ ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് അറിയാൻ പറ്റുമോ എന്തൊക്കെയാണ് അവിടെ അല്ല മേഡം ഇത് നമുക്ക് ഇപ്പോൾ ഒത്തിരി കംപ്ലയിൻറ്റ്സ് ഈ ബാങ്ക് വഴിയൊക്കെ കേൾക്കുന്നുണ്ട് നമ്മുടെ പൈസ മണിയൊക്കെ നമ്മൾ ചെയ്തിട്ട് അതൊക്കെ നഷ്ടപ്പെടുന്നതായിട്ട് റിസ്ക് ചെയ്തിട്ടും ഇങ്ങനെ കളിപ്പിക്കുന്ന അങ്ങനെ ഒത്തിരി കേൾക്കുന്നുണ്ട് ആ അവിടെ മാനേജരുണ്ടോ മാനേജരുമായിട്ട് ബന്ധപ്പെട്ട വല്ല ക കാര്യം നടക്കാൻ സാധ്യതയുണ്ടോ ആ എന്നാൽ ശരി മേ ഞാൻ പിന്നെ ബന്ധപ്പെട്ടോളം കേട്ടോ ഓക്കെ ഓക്കെ ഓക്കേ